ഹാലോ ആ ഹാപ്പി ട്രാവൽസ് അല്ലേ അപ്പോൾ ഞാൻ അശോക് ഞാൻ ഒരു വണ്ടി ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിക്കുകയാണ് ആ ഒരു ട്രിപ്പിന് വേണ്ടി അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അതിരപ്പള്ളിക്ക് ഈ ആഴ്ച തന്നെ ഈ ഇരുപത്തി ഏഴാം തീയ്യതി ഈ ശനിയാഴ്ച അപ്പൊ അതിൻ്റെ പൈസയെ കുറിച്ച് അറിയാനാണ് ആ അപ്പോൾ അത് ഒരു നാലഞ്ച് പേരാണ് ഇപ്പോൾ നാലഞ്ച് അഞ്ച് നാല് അല്ലെങ്കിൽ ആറ് പേരാണെന്നാണ് നമ്മൾ ഇപ്പൊ കണക്കാക്കിയത് നാലു പേര് അപ്പോൾ അതിൻ്റെ പൈസ എങ്ങനെയാണെന്ന് അറിയാനാണ് അപ്പോൾ ആ നമ്മൾ ഇരുപത്തേഴാം തീയതി കാലത്ത് ഒരു അഞ്ചരയ്ക്ക് അഞ്ചര ആറിനോട് അടുപ്പിച്ച് ഇറങ്ങിയിട്ട് അന്ന് തന്നെ ഒരു വൈകുന്നേരം ഒരു എട്ട് എട്ടര ഒമ്പതിനോട് അടുത്ത് അടുപ്പിച്ച് തിരിച്ചെത്താനാണ് നമ്മളുടെ കണക്കു കൂട്ടൽ അപ്പോൾ ആ എൻ്റെ വീടല്ലേ എൻ്റെ വീട് ഇവിടെ വെസ്റ്റ് ഫോർട്ട് ആയിട്ടാണ് അപ്പോൾ അന്ന് ഏകദേശം അവിടെ വന്ന് പിക്ക് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വിളിച്ചത് അപ്പോൾ ഏതിൻ്റെയൊക്കെ ആന്നോ ഒരു നാല് പേരെ കൊള്ളുന്ന വണ്ടിയുടെയും ഒരു ആറ് പേരെ കൊള്ളുന്ന വണ്ടിയുടെയും കോസ്റ്റ് അറിഞ്ഞാൽ ഉപകാരമായിരുന്നു നാലു പേരുടെയോ നാലു പേരുടെ വണ്ടി ഏതാണെന്നാണ് പറഞ്ഞത് ഓ സാധാ കാറാണ് അല്ലെ നമ്മുടെ ഏത് ഏത് കാറാണ് ഓ റെനോൾഡ് ലോഗൻലേ ഓ സ്ഥിരം കാർ ഓക്കേ അപ്പോൾ അതിൽ അതിന് എയാവുംന്നാ പറയുന്നത് പൈസ അയ്യായിരം ആവുമല്ലേ ഓ ഓ ഓ അപ്പോൾ അയ്യായിരം അപ്പോൾ ആറു പേരുടെയോ ആറായിരത്തി ഏഴ് അഞ്ഞൂറോ ആ ആ ഏത് കാറാണ് വരുന്നത് ഓ നമ്മുടെ ഇന്നോവ അല്ലേ ഓ ഓ ഓ അപ്പോൾ എങ്ങനെ ഇതിൽ ഈ ഡ്രൈവർക്ക് ഫുഡ് നമ്മൾ അറേയ്ഞ്ച് ചെയ്യണോ ഓ ആറുപേരുടെ ഇതിലാവുമ്പോൾ ഫുഡ് ഡ്രൈവറുടേതിൽ ആ ആ പൈസയിൽ ഉൾപെടുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ അയ്യായിരത്തിൻ്റേതിലാണ്ങ്കി എങ്കിൽ നാല് പേരുടേതിലാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതല്ലേ ഓ അപ്പോൾ പിന്നെ ഡീസലടിക്കാനുള്ള പൈസയോ ആ അത് ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ രണ്ടിലും ഉൾപ്പെടുന്നുണ്ടല്ലേ ഓ ഓ ഓ അപ്പോൾ ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് വിളിക്കാം അപ്പോൾ ഇരുപത്തേഴാം തീയ്യതി വണ്ടിയുണ്ടാവില്ലേ രണ്ട് വണ്ടിയായാലും ഓ ഓ ഓ പെട്ടന്ന് പറയണം അല്ലേ ഓഡർ ഓ പെട്ടന്ന് ബുക്കിംഗ് വരുന്നുണ്ട് അല്ലേ ആ അപ്പോൾ ഞാൻ ഇന്ന് രാത്രിക്കുള്ളിൽ നാളെ കാലത്തന്നെ പറഞ്ഞാൽ വണ്ടി കിട്ടില്ലേ ഓക്കേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ ഓ ഓ ഓ ഓക്കേ അ ശരി താങ്ക് യു ചേട്ടാ